കൃഷിയാണ് ഞങ്ങളുടെ തൊഴിൽ കൃഷിയെന്നു വെച്ചാൽ ഞങ്ങളുടെ ഭയങ്കര നല്ല ജീവനാണ് കൃഷിയെന്നു പണ്ടൊക്കെ കൃഷിയെന്നു പറയുമ്പോൾ ഞങ്ങൾ തന്നെയാണ് എല്ലാ പണികളെല്ലാം ചെയ്തത് നടുന്നത് തൊട്ടിട്ട് വിത്ത് വിതച്ച് അതിനെ പാകിയെടുത്ത് അതിനെ മുളപ്പിച്ച് പിന്നീടു കൊണ്ട് നട്ട് അത് ചെടിയായി വരുന്നവരെ അത് അല്ലാതെ നമ്മള് അതിനെ കൊയ്തെടുക്കുമ്പോഴും ഒര് സന്തോഷം തന്നെയാണ് ഞമ്മള് ജീവിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകുടുംബമാണ് അപ്പോൾ അച്ഛനും അമ്മയും എല്ലാം കൃഷിത്തൊഴിൽ തന്നെയാണ് ഞങ്ങളുടെ കുടുംബവും എല്ലാം കൃഷിയാണ് ചെയ്തു കൊണ്ട് ഇരിക്കുന്നത് ഇപ്പോഴും കൃഷിയെന്നെയാണ് പണ്ട് ആ കൃഷി എന്ന് പറയുമ്പോഴേക്ക് അത് കൊണ്ടു വന്നിട്ട് അതാണ് ഞങ്ങള് പണ്ട് പണ്ട് ഇതുതന്നെയാണ് ഉരലില് അതിനെ നെല്ലിനെ കൊണ്ടുവന്ന് അതിനെ കുത്തിയെടുത്ത് അരിയാക്കിയിട്ടാണ് നമ്മൽ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കൃഷിയാണെന്ന് ഇപ്പോൾ കൃഷി അന്ന് സന്തോഷമായിരുന്നു ഞങ്ങള് എല്ലാം ഒര് കൂട്ടുകുടുംബത്തില് താമസിക്കുകയായിരുന്നു എല്ലാരും കൂടി ഒരുമിച്ചിട്ട് കൃഷിയിലിറങ്ങിയതായിരുന്നു അപ്പോഴത്തെ അന്ന് നമ്മള് ജൈവവളമൊക്കെയാണ് ഉപയോഗിച്ചിട്ട് ഇരുന്നത് അതിൻ്റെ കാളങ്ങള് കാലങ്ങളൊക്കെ മാറി ഇപ്പോൾ അതങ്ങനെ തല തിരിഞ്ഞു പോയിയെന്ന് പറയാം ഇപ്പോഴെന്ന് പറയുമ്പോഴേക്കും അതിനെ കിടനാശിനികള് അടിക്കുക അതിനെ അജൈവ വളം ഉപയോഗിക്കുക പിന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഓരോന്നും ചെയ്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു പണ്ട് നമ്മൾ ആ ചെടി നടണമെങ്കിൽ ആളാണ് നട്ട് കൊണ്ടിരുന്നത് ഇപ്പോൾ മിഷീനാണ് എല്ലാം ചെയ്ത്കൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെല്ല് കൊയ്താലും അതിന് മെഷിൻ കൊയ്തുകൊണ്ടു വന്നിട്ടാണ് നമ്മുടെ വീട്ടിൽ കൊണ്ട് വന്നിട്ട് തട്ടലും അതിനിട്ടു പണ്ട് ആൾക്കാരാണ് കടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിന് യന്ദ്രം ട്രാക്ടറോ എന്തെങ്കിലും വണ്ടികള് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത് പണ്ടത്തെ അരിക്കും ഇപ്പോഴത്തെ അരിക്കും നല്ലപോലെ വ്യത്യാസങ്ങളുണ്ട് നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് ആ അരി വാങ്ങിച്ചു കഴിക്കുകയാണ് വെച്ചാലും ഇപ്പോൾ എന്താണ് പലതരം അരികൾ അതിലുണ്ട് നമുക്ക് അതിന്റെയെല്ലാം മരുന്നുകളുടെ അംശമാണ് കൂടുതൽ ഇപ്പോൾ നമ്മള് കൃഷി ചെയ്യുമ്പോൾ നമ്മളുടെ വീട്ടിലത്തെയെന്ന് പറയുമ്പോഴേക്കും നമുക്ക് അതൊരു സന്തോഷം ഒക്കെയാണ് നമ്മൾ കൂട്ടുകുടുംബത്തിലിരുന്ന് നമ്മൾ ഇതെല്ലാം പണികൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒര് തൃപ്തി തൃപ്തി തന്നെയാണ് അതല്ലാതെ നമ്മൾ എല്ലാവരും കുടിയിട്ട് ഒരുമിച്ചു ചെയ്യലും പിന്നെ ഓണമോ വിഷുവോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആ കുത്തിരി ഉണ്ണുമ്പോൾ അതിൻ്റെ സന്തോഷം എവിടെയും വേറെ എവിടേയും കിട്ടില്ല ആ പുതിയ നെല്ല് കൊണ്ട് വന്നിട്ടാണ് നമ്മള് അതിനെ ഉരലിൽ ഇട്ട് കുത്തി എടുത്ത് അതിന്റെ ചേറ് എല്ലാം ഇടത്തിട്ട് ആ കുത്തിരി ഉണ്ണുമ്പോൾ വിളക്ക് കുത്തി വച്ചിട്ടാണ് നമ്മൾ ആ കുത്തിരി ഉണ്ണുന്നത് അത് ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ആ ഒര് ദിവസമാണ് നമ്മളുടെ നെല്ലെടുത്ത് നമ്മൾ കുത്തിരി ഉണ്ണുക നമ്മളുടെ പുതിയ നെല്ലും കൂടിയാണത് നെല്ലെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് നെല്ലാണ് പ്രധാനപ്പെട്ട ഒരു ജീവിതവുമാണ് നെല്ല് അപ്പോൾ അതാണ് നമ്മളുടെ തൊഴിലുമാണ് പിന്നെ നമ്മുടെ മക്കൾക്ക് അത് പറഞ്ഞു കൊടുക്കാറൊക്കെയുണ്ട് മക്കള് അതിനെക്കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ലെങ്കിലും നമ്മളുടെ നമ്മളുടെ എന്നു പറയുമ്പോൾ നമ്മൾക്കാണ് പിന്നെ നമുക്ക് ഇത് ഒരുപാട് കൃഷിയൊക്കെയുണ്ട് നമ്മള് നമ്മളുടെ പണി നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മനസ്സിന് ഒരു തൃപ്തിയുമാണ് നമ്മള് നമ്മളുടെയാണെല്ലോ എന്നു പറഞ്ഞ് നമ്മള് ജീവിക്കുകയാണ് കൃഷിയെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷവുമാണ് നമ്മളുടെ അരി എടുത്ത് നമ്മൾ ഉണ്ണുമ്പോൾ എന്താണ് പുറത്ത് നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മളുടെ എടുത്ത് ഉണ്ണുമ്പോൾ വില കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ നമ്മളുടെ വീട്ടിൽ ഉൽപാദിപ്പിച്ച് കഴിക്കുമ്പോൾ അത് നമുക്കൊരു സന്തോഷമായിട്ട് നമുക്ക് തോന്നാറുണ്ട്